ഇൻഡ്യയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ട് വന്ന ഒരു മേഖലയാണ് വസ്ത്ര മേഖല അതിന് കാരണം ഒരു പാട് പാശ്ചാത്യ വസ്ത്ര രീതികൾ ഇന്ത്യയെ വസ്ത്രരീതികളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ട് പാൻറ്റ് ട്രൗസേഴ്സ് നിക്കറുകള് ബനിയനുകള് ഇവയെല്ലാം നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇൻഡ്യൻ വസ്ത്ര മേഖലയിലേക്ക് കടന്ന് വന്നവയാണ് അതിനാൽ തന്നെ ഇൻഡ്യൻ ഫാഷൻ ഇൻഡ്യൻ വസ്ത്രമേഖല വളരെയധികം പഴയ മേഖല അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം പഴയ കാലത്തേ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് മുണ്ടുകളും ഷർട്ടുകളും ബനിയനുകളും ഒക്കെയായിരുന്നു എന്നാൽ ഇപ്പോളത്തെ തലമുറയിലേക്ക് വന്നതും പഴയകാലത്ത് ഉപയോഗിച്ച് കൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ പുതിയ തലമുറ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഷർട്ടുകൾ പാൻറ്റുകൾ അതുപോലെ തന്നെ ബെർമൂഡകൾ മുതലായവ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇൻഡ്യൻ വസ്ത്രമേഖലയെ പാശ്ചാത്യ വസ്ത്ര സംസ്കാരം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഷർട്ടും പാൻറ്റും മാത്രമാണ് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ഇറുകി കിടക്കാത്ത ടൈപ്പ് വസ്ത്രങ്ങൾ ലൂസ് ടൈപ്പ് ബനിയനുകൾ ഷർട്ടുകൾ അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വീടുകളിൽ ഞാൻ കൂടുതലായിട്ടും പബ്ലിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഷർട്ട് പാൻറ്റ് അങ്ങനത്തെ വസ്ത്രങ്ങളാണ് എന്നാൽ പ്ര പ്രൈവറ്റ് അവസരങ്ങളിൽ ഞാൻ ഐ മീൻ എന്നുദ്ദേശിച്ചത് വീടുകളിൽ ഞാനധികം ഉപയോഗിക്കുന്നത് മുണ്ടുകളും ഷർട്ടുകളും അല്ലങ്കിൽ ബർമുഡകള് അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ഇവയെല്ലാം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് മിക്കതും തന്നെ ഞങ്ങൾ ഇടുക്കിയില് ഞങ്ങളുടെ കൂട്ടുകാരുടെ കടകൾ വസ്ത്രശാലകളുണ്ട് അവിടുന്നാണ് ഞങ്ങൾ കൂടുതലും മേടിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി സാധനങ്ങളവര് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും വളരെ വിലക്കുറവില് അതിനാൽ തന്നെ ഇന്നത്തെ വസ്ത്ര ശീലവും ആദ്യകാലത്തെ വസ്ത്ര ശീലവുമൊക്കെ വച്ച് നോക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും